പാലക്കാട് ജില്ലയിലെ പ്രധാന ഭക്ഷണങ്ങളൊക്കെയെന്ന് പറയുമ്പോൾ രാമശ്ശേരി ഇഡ്ഡലി പാലക്കാട് പ്രസിദ്ധമായിട്ടുള്ളൊരു ഭക്ഷണമാണ് രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയുന്നത് അതിന് കൂടെ ചട്നി ചമ്മന്തി അതുപോലെ തന്നെ ദോശ ഇതൊക്കെ പാലക്കാട് ഉള്ള പരമ്പരാഗത വിഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ പരമ്പരാഗത വിഭവങ്ങളൊക്കെ പാലക്കാടിന് മാത്രം അവകാശപ്പെടുന്നതാണ് അപ്പോൾ പിന്നെ പാലക്കാട് സദ്യയെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ് കാരണം മറ്റേത് ജില്ലയ്ക്കുമിലാത്ത പ്രത്യേക രുചിക്കൂട്ടുകളിലാണ് പാലക്കാട് ജില്ലയിലെ സദ്യ ഉണ്ടാക്കുന്നത് അതിലെ പ്രധാന താരമായി ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളി നോക്കുകയാണെന്ന് വച്ചാൽ പല പേരുകളിലാണ് ഇഞ്ചിപ്പുളി പാലക്കാട് തന്നെ അറിയപ്പെടുന്നത് പുളിയിഞ്ചി എന്നും അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഈ ഒരു പാലക്കാട് ജില്ലയുടെ ഈ ഒരു സംസ്കാരത്തെയും ചരിത്രത്തെയും ഇതെല്ലാം പ്രതിഫലിപ്പിക്കുകയാണ് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട് ഇപ്പോൾ നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട് ഇപ്പോൾ നമ്മുടെ വീടുകളിലുണ്ടാക്കുന്ന മാതിരി ഹോംലി ഫുഡ് ലഭ്യമായിട്ടുള്ള ഒരുപാട് ഹോട്ടലുകളുണ്ട് സംഗമ ഹോട്ടൽ മലബാർ ഹോട്ടൽ ഡൈൻ റെസ്റ്ററെൻറ് അതുപോലുള്ള ഒരുപാട് ഹോട്ടലുകളുണ്ട്